ഞാൻ ഉണ്ടാക്കാറുള്ള ലഘുഭക്ഷണങ്ങൾ പരിപ്പുവട ഉഴുന്നുവട പഴംപൊരി അട അവിയ അവിൽ നനച്ചത് എന്നിവയൊക്കെയാണ് ഇതിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പരിപ്പുവട ഉഴുന്നുവട ഒക്കെ പരിപ്പുവട ഉഴുന്നുവട എന്നിവ വൈകുന്നേരത്തെ ഏറ്റവും ചെറിയ ലഘു ഭക്ഷണമാണ് പഴംപൊരി പഴംപൊരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അതായത് നല്ല നേന്ത്രപ്പഴം സ്ലൈസ് ചെയ്തിട്ട് മുറിയ്ക്കുക അതിൽ മുറിച്ച് മുറിച്ചു വെയ്ക്കുക അതിന് ശേഷം കുറച്ച് മൈദമാവ് എടുത്ത് വെള്ളത്തിൽ അധികം വെള്ളത്തിൽ അല്ലാതെ ഒരു കട്ടരൂപത്തില് കുഴച്ച് കട്ടരൂപത്തില് ഏകദേശം നമ്മുടെ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ തയ്യാറാക്കി വെയ്ക്കുക അതിലേയ്ക്ക് സ്ലൈസ് ആക്കി വെച്ച പഴത്തിൻ്റെ പീസുകള് മുക്കിവെച്ചത് മുക്കിവെയ്ക്കുക ഗ്യാസ് ഓൺ ചെയ്ത് എണ്ണ നന്നായി ചൂടാക്കി ഒരു കട്ടിയുള്ള പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേയ്ക്ക് ഈ ഓരോരോ പീസ് മാവില് മുക്കിയിട്ട് എണ്ണയിൽ പൊരിച്ചെടുത്താൽ പഴം പൊരി റെഡി ആയി വളരെ സ്വാദിഷ്ടമായ ചെറിയ ലഘു ഭക്ഷണമാണ് ഇത് ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ലതാണ് നല്ല പ്രോട്ടീൻ ഉള്ള ഒരു ചെറു ചെറിയ ലഘുഭക്ഷണവുമാണ് ഇത് ദഹിക്കാനും എളുപ്പമാണ് ശരീരത്തിനും വളരെ നല്ലതാണ്